കാലത്തിനനുസരിച്ച് മാറുന്ന വാർത്താ മാധ്യമങ്ങൾ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് നമ്മുടെ മുൻപിൽ ലഭ്യമാണ് അതിലെ മാർഗ്ഗ ഉത്തമ ഉദാഹരങ്ങളാണ് പത്രം റേഡിയോ ടീ വി ഇൻ്റർനെറ്റ് തുടങ്ങിയവ അതിലൂടെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പഴയതായിരുന്ന ദൂരദർശൻ്റെ പഴയകാല പരിപാടികൾ അപേക്ഷിച്ച് ഇന്നത്തെ പരിപാടികൾക്ക് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ദൂരദർശൻ എന്നത് നമുക്ക് കേൾക്കുവാൻ മാത്രം സാധിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായിരുന്നു അവിടെ നടക്കുന്ന റേഡിയോ എന്നതിലൂടെ ദൂരദർശൻ സംപ്രേക്ഷണം ചെയ്യുന്നതായിരുന്നു പക്ഷേ ടീ വി വന്നതോടെ അതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു കേൾക്കുന്നതിനോടൊപ്പം കാണുവാനും അതിൽ കൂടുതൽ അതിൽ ഉൾക്കൊള്ളുവാനും നമുക്ക് അതിലൂടെ സാധിക്കുന്നു കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതല്ല കണ്ടു പഠിക്കുമ്പോളാണ് നമ്മളിലേക്കു കൂടുതൽ ആഴത്തിൽ ഓരോന്നും പതിയുക മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതും നമ്മളോരോന്നും കാണും കണ്ടും അനുഭവിച്ചുമാണ് ഓരോന്നും മനസ്സിലാക്കുന്നത് കുട്ടികളിലെ പഠന മികവ് വളർത്തുവാൻ ഈ മാധ്യമങ്ങൾക്ക് വളരെയധികം സഹായകരമായിട്ടുണ്ട് കുട്ടികൾക്ക് കാണാതെ കുട്ടികൾ നേടിയിരുന്ന അറിവുകളെ മറികടക്കുവാൻ കാണാതെ പഠിക്കുന്നതിലൂടെ ഓരോന്നും സാധിക്കുന്നുണ്ട് ഇവിടെ നടക്കുന്നത് എന്താണെന്നും അതിന് എക്സാമ്പിളുകൾ എക്സാമ്പിളുകൾ സഹിതം കുട്ടികൾക്ക് കാണുവാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട് ടീ വി എന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നോടൊപ്പം നമ്മുടെ സമയത്തെ നമ്മുടെ വിശ്രമ സമയങ്ങളിൽ കൂടുതൽ മനോഹരമാക്കുവാൻ ഇതിനു സാധിക്കുന്നുണ്ട് അതുപോലെ മൊബൈൽ ഫോണുകൾ പലവിധത്തിലുള്ള വാർത്തകൾ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വിരൽത്തുമ്പിൽ അതു നമ്മൾ എന്താവശ്യപ്പെടുന്നോ അതാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ എന്താണ് ചോദിക്കുന്നത് നമുക്ക് എന്താണ് തരുന്നത് എന്നു നാം മനസ്സിലാക്കുക ഓൺലൈൻ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് അതിനെ ദുരുപയോഗം ചെയ്യാനും അതിനെ നമുക്ക് ഉപയോഗിക്കുവാനും സാധിക്കുന്നു അത് ഏതു രീതിയിലാണെന്നും അത് എന്താണെന്നും നാം മനസ്സിലാക്കുക എങ്ങനെയാണെന്നു ചിന്തിക്കുക നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ സോഷ്യൽ മീഡിയകൾക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട് നാം നല്ല രീതിയിലും ദോഷ വശങ്ങൾ മനസ്സിലാക്കി അതിനെ ദുരുപയോഗം ചെയ്യാതെ ഉപയോഗപ്പെടുത്തുക നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ ലക്ഷ്യകരമാക്കാൻ ഇത് ഓരോന്നും നമ്മളെ സഹായിക്കുന്നുണ്ട് ഇൻ്റർനെറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് വേണ്ടത് എന്നു നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്നു ആ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു നമുക്ക് വേണ്ട എല്ലാ അറിവുകളും നമുക്ക് ലഭിക്കുന്നു ഇൻ്റർനെറ്റ് എന്ന പ്ലാറ്റ്ഫോം നമുക്ക് മുൻപിൽ തുറന്നിരിക്കുകയാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് എന്തും തരാൻ ഏതു നിമിഷവും നമുക്ക് മുൻപിൽ എത്തിക്കുവാൻ വേണ്ടി നമ്മുടെ മുൻപിലെ തുറന്ന പുസ്തകങ്ങളാണ് ഇൻ്റർനെറ്റുകൾ തുറന്ന പുസ്തകങ്ങളായി നമുക്ക് ഇതിനെ ലഭിക്കുന്നതാണ് നമ്മൾക്ക് എന്തു വേണം എന്ത് ആവശ്യപ്പെടുന്നു നമുക്ക് എന്തു വേണം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ പല സാഹചര്യങ്ങളിലും പലയിടത്തേക്കും വഴിയറിയാതെ വഴി തെറ്റി യാത്ര ചെയ്യുമ്പോൾ ഇതിനെല്ലാം വഴികാട്ടി തരാനും നമ്മളെ മൊബൈൽ ഫോൺ നമ്മളെ സഹായിക്കുന്നുണ്ട് അതിനെയെല്ലാം മനസ്സിലാക്കുക അതിനെയെല്ലാം നാം നേരിട അതെല്ലാം നമുക്കു വേണ്ട കാര്യങ്ങൾ നൽകുന്നുണ്ട് ഇതു വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്താണ് നാം എത്തിയിരിക്കുന്നത് എ ഐ പോലെയുള്ള മീഡിയകൾ നമ്മൾ എന്തു ചോദിച്ചാലും നമ്മൾക്ക് ഉത്തരങ്ങൾ നൽകുന്നു നമ്മളെ തിരുത്തുവാനോ നമ്മളെ നല്ലവരായി നയിക്കുവാനോ ഇതിൽ ആരുമില്ല പക്ഷെ നമ്മളാണ് നമ്മളെ നടത്തേണ്ടത് നമ്മളാണ് നമ്മളെ കുറിച്ചു ചിന്തിക്കേണ്ടത് നമുക്ക് എന്താവശ്യമുണ്ടോ നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് എന്താണോ ആവശ്യമുള്ളതു മാത്രം ഉപയോഗിക്കുക വേണ്ടാത്തതിനെ നമ്മൾ കണ്ടില്ല എന്നു വെക്കുക നമ്മുടെ അറിവിനെ വളർത്താൻ ശ്രമിക്കുക ഒന്നിനെയും നാം ദുരുപയോഗം ചെയ്യാൻ പാടില്ല നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ സ്വീകരിക്കുക നമുക്ക് ആവശ്യമുള്ളത് എന്തും നമ്മൾ നല്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതങ്ങൾ നൽ മനോഹരമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതിനിടെ നമുക്ക് സഹായിക്കുന്ന എല്ലാ വഴികളും നാം ഉപയോഗിക്കുക പല പല ജോലി സാഹചര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിലൂടെ ലഭിക്കുന്നുണ്ട് ആ ജോലി സാഹചര്യങ്ങളെ എല്ലാം ഉപയോഗപ്പെടുത്താനും നാം പരിശ്രമിക്കണം നാം ഓരോരുത്തരും നയിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളാണ് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടി തന്നെ ദൂരദർശൻ സംബന്ധിച്ചിടത്തോളം അതിലൂടെ വന്ന മാറ്റങ്ങൾ ഇന്നും വന്നു കൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ ആ മാറ്റങ്ങൾ എല്ലാം നാം മനസ്സിലാക്കുക മാറ്റങ്ങളിലൂടെ ജീവിക്കുക